ഹലോ നമസ്കാരം അതെ ഗ്യാസ് ബുക്ക് ചെയ്യണമായിരുന്നു അത് ഞാൻ എന്ന് അത്താഴം കഴിച്ച് അത്താഴത്തിനുള്ള ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്തുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് തീർന്ന് പോയി അത് എന്താവോ ഈ ഈ മാസം വന്ന ഗ്യാസ് കൂടുതൽ സിലിണ്ടറ് അത്യാവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഗ്യാസ് തീർന്ന് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു അടിയന്തിരായിട്ട് ഒരു പ്രത്യേകം പെട്ടന്നൊരു ഗ്യാസ് ബുക്ക് ചെയ്യണം ഏ അപ്പോൾ എന്താണ് അതിന് വേണ്ടത് വെച്ചാൽ എൻ്റെ യൂസറ് ഐ ഡി യും ഡെലിവറി അഡ്രസ്സൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ അത്യാവശ്യമാണ് കാരണം ഇന്ന് വിരുന്നുകാരും അതുപോലെത്തന്നെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡല്ല സോറി വൈഫിൻ്റെ ഫ്രണ്ട്സെല്ലാം വരുന്നുണ്ട് അപ്പം അത്യാവശ്യമായിട്ട് ലഞ്ച് ഒരുക്കണമായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്നൊരു ഗ്യാസ് സിലിണ്ടർ വേണമായിരുന്നു ഏ അപ്പ അതിന് എത്രയാണ് കാല താമസം പിടിക്കുമോ ഇന്നേക്ക് കിട്ടുമോ എന്താണ് അതുപോലെത്തന്നെ നമ്മുടെ ഈ ആപ്പ് വഴി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഓൺലൈനായിട്ട് എത്ര നിങ്ങൾക്ക് എത്ര നേരം കൊണ്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ എങ്ങ് ഇന്ന് ഉച്ചന് മുന്നെ ഡെലിവറി ഉള്ള സ്ഥലത്ത് ഞങ്ങൾ വന്ന് വേണമെങ്കിൽ പിക്കപ്പ് ചെയ്യാം അതൊന്നും ഒരു പ്രശ്നം അല്ല അത്യാവശ്യമായിട്ടിപ്പം ഒരു ഗ്യാസ് വേണേൽ എന്ത് എന്ത് പറയുക അത്യാവശ്യം ആയതുകൊണ്ടാണേ ഓക്കെ ടാങ്ക് യൂ